ഞങ്ങളുടെ പ്രദേശം ഇടുക്കി ജില്ലയിലെ പാറത്തോട് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയുക ആണെങ്കിൽ ഇത് പത്ത് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ പൂർവ്വീകർ കുടിയേറി വെട്ടിപ്പിടിച്ച് വന്ന സ്ഥലമാണ് ഇവിടെ അനേകം വന്യജീവികളുള്ള ഒരു ആവാസവ്യവസ്ഥയുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ആയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത് എന്നിരുന്നാൽ തന്നെയും മനുഷ്യരുടെ കൂടിയേറ്റത്തോടു കൂടി വന്യജീവികളൊക്കെ ഇവിടെ അന്യം നിന്ന് പോയിട്ടുണ്ട് കാലകാലങ്ങളായി അവക്കൊക്കെ നാശം സംഭവിക്കുകയോ അതേ ഉൾ കാടുകളിലേക്ക് കുടിയേറി പോവുക ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിലവിൽ കുറെ വർഷങ്ങളായിട്ട് വന്യജീവികളെ ഒന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയില്ല പക്ഷേ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ഇടയിൽ സംഭവിച്ച കുറെ കാര്യങ്ങൾ മനുഷ്യനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതായത് വന്യജീവികളുടെ ആക്രമണം വീണ്ടും മനുഷ്യൻ ആവാസ വ്യവസ്ഥയിലോട്ട് അല്ലേ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലോട്ട് അത് കടന്ന് വരാനായിട്ടും അതിൻ്റെ ബലമായി ഒരുപാട് മനുഷ്യൻ ജീവനുകൾ നഷ്ടപ്പെടാൻ ഒക്കെ ഇട വന്നിട്ടുണ്ട് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട വന്യജീവികൾ എന്ന് പറഞ്ഞാൽ ആന കുരങ്ങ് കാട്ടുപന്നി എന്നിവ ഒക്കെയാണ് സാധാരണയായിട്ട് ഇവിടെ കൂടുതൽ കാണപ്പെടുന്ന വന്യജീവികൾ ആനയെക്കുറിച്ച് പറയുക ആണെങ്കിൽ എൻ്റെ ഒക്കെ ചെറുപ്പ കാലത്ത് ആനയെ നമുക്ക് നാട്ടിലങ്ങനെ കാണാനേ പറ്റില്ലായിരുന്നു ഏകദേശം എനിക്ക് പത്ത് നാൽപ്പത് വർഷങ്ങൾക്കിടയിൽ നമുക്ക് ഒരിക്കലും ഒരു ആനയുടെ ആക്രമണമോ അല്ലെങ്കിൽ ആന വന്ന് കൃഷിയിടം തകർക്കുന്ന സംഭവങ്ങളൊന്നും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു എന്നാൽ ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ ആയിട്ട് ഈ ആനയുടെ ആക്രമണം വല്ലാണ്ട് ഇടുക്കി ജില്ലയിൽ കൂടിയിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വംശം പെരുക്കുന്നതാണോ അതെയോ കാട്ടിൽ ഭക്ഷണം ഇല്ലാതെ അത് നാട്ടിലോട്ട് ഇറങ്ങുന്നതാണോ ഒന്നും നമുക്ക് അറിഞ്ഞൂട പിന്നെ ഒന്നാണ് കുരങ്ങുകൾ കുരങ്ങുകളും വളരെ ചുരുക്കം വനങ്ങളിൽ മാത്രം അത് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഈ കുരങ്ങുകൾ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലങ്ങളിലോട്ട് കടന്ന് വരികയും അവിടെയുള്ള കൃഷി ഭൂമികൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവങ്ങൾ നടന്ന് വരുന്നുണ്ട് അപ്പം കുരങ്ങിൻ്റെ വംഷാർഥന ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ആയത് കുരുമുളക് ജാതി ഏലം തുടങ്ങിയ എല്ലാം നശിപ്പിക്കുന്ന രീതിയിലോട്ട് കുരുങ്ങുകളുടെ ഒരു സ്വഭാവം മാറിയതാണോ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് ഇറങ്ങി വന്നതാണോ എന്ന് നമുക്ക് അറിഞ്ഞുടാ എങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വർദ്ധിച്ച് വരുന്നുണ്ട് പിന്നെ കാട്ടുപന്നി കാട്ടുപന്നീം ഒരു പ്രധാനപ്പെട്ട വന്യജീവി നമ്മുടെ മേഖലയിൽ കാണപ്പെടുന്ന ഒരു വന്യജീവിയാണ് അപ്പം ഇതിനെ കാട്ടുപന്നീനെ പണ്ടൊക്കെ ആട് ആളുകൾ വേട്ടയാടി ഭക്ഷണമാക്കിയിരുന്നു പക്ഷേ ഇപ്പോഴും നിയമം കുറച്ചു കൂടെ കർശനം ആയത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള പ്രവണതകളിലേക്കോ ആളുകൾ തിരയുന്നില്ല പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക വിളകൾ ഇവ കണ്ടമാനം നശിപ്പിക്കുന്നു കർഷകർക്ക് ഭയങ്കര ജീവിതം ഈ ഇടുക്കി ജില്ലയിൽ ഈ ഹൈ റഞ്ജി മേഖലകളിൽ ഒക്കെ ബുദ്ധിമുട്ടായി മാറുന്ന ഒരവസ്ഥ ഇപ്പൊൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടീട്ട് ഗെവൺമെൻറ്റ് നിയമം കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം പണ്ട് കാലങ്ങളിൽ ആളുകൾ വേട്ട ആടുകയും അവയെ ഭക്ഷണമാക്കി ഒക്കെ ചെയ്തിരുന്നു അന്ന് നിയമം ഉണ്ടെങ്കിലും ഇത്ര കർശനമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വന്യജീവികളെ സംരക്ഷിക്കാനായിട്ട് വനം വകുപ്പ് കേരള ഗെവൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റലുകളൊക്കെ വളരെ നിയമം കർഷനമാക്കി നടപ്പിലാക്കാൻ ആരംഭിച്ചതോടു കൂടി ഈ പ്രശ്നങ്ങൾ കുറച്ച് കൂടെയൊക്കെ വന്യ ജീവികളെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായി നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് വന്യജീവികളെക്കുറിച്ച് മാത്രമേ ഗെവൺമെൻറ്റിന് ആശങ്ക ഉള്ളൂ പക്ഷേ അവിടെയുള്ള മനുഷ്യ ജീവിതത്തെെക്കുറിച്ച് അശങ്ക ഇല്ല എന്നാണ് ഇവിടെ ഇപ്പോൾ ഉയർന്ന് വരുന്ന ഒരു വികാരം വന്യജീവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എങ്കിലും മനുഷ്യവാസ മേഖലയിലോട്ടുള്ള വന്യജീവികളുടെ കടന്ന് കയറ്റോം ആക്രമണവും ഈ ഒരു ഒന്നോ രണ്ട് വർഷത്തിനിടയിൽ പത്ത് മുപ്പത് ജീവനുകളാണ് വന്യജീവികളുടെ ആക്രമണത്തിൽപ്പെട്ട് മരണമടഞ്ഞത് മനുഷ്യ ജീവനുകൾ ഇല്ലാതായത് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവ പെറ്റു പെരുകുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഒക്കെ ഉള്ള പോലെ അവ വേട്ടയാടാനുള്ള ഒരു പെർമിഷൻ കുറച്ച് കാലത്തേക്കെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കുക ആണെങ്കിലും നല്ലതായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ അഭിപ്രായം വന്യജീവികളെ സംരക്ഷിക്കാനായിട്ട് നിലവിൽ നിയമങ്ങളൊക്കെ കർശനമാണ് എന്തെങ്കിലും ചെറിയ വന്യജീവികളെ കൊന്ന് കൊന്ന് ഭക്ഷണമാക്കിയ കേസുകളൊക്കെ വന്ന് കഴിഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പായി ആളുകൾ ജെയ്ലി പോകുന്ന അവസ്ഥകളൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ വന്യജീവിളത്തിച്ച് ഉള്ള കുറച്ചും കൂടി കാര്യക്ഷമമായി പഠനം നടത്തി എങ്ങനെയാണവയെ സംരക്ഷിക്കേണ്ടതൊന്നും മനുഷ്യന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവയെ എങ്ങനെ കൈകാര്യം ചെയ്യും പറ്റുമെന്നൊക്കെ നമുക്ക് കുറച്ചും കൂടെ ശക്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിന് ഇപ്പോൾ ആനുകാലിക പ്രസക്തി വളരെ കൂടുതലാണ് അപ്പം അവയെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ സംസാരിക്കാവുന്നതാണ്